പണ്ടൊക്കെ നമ്മളിപ്പോൾ കൃഷിയെല്ലാം ചെയ്യാൻ വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നെൽകൃഷി തന്നെ ആയിക്കോട്ടെ പണ്ട് പിന്നെ നമ്മൾ മണ്ണൊക്കെ ഉഴുതാൻ എല്ലാം ഇത് തൂമ്പ തൂമ്പനെ കൊണ്ട് മണ്ണ് മറിച്ചിട്ട് പിന്നെ കലപ്പ കലപ്പ ഉപയോഗിക്കും ഇപ്പോഴെന്നുവെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ടൊന്നും കാര്യമില്ലാണ്ടായി ഇപ്പോൾ മണ്ണ് വെട്ടാൻ ട്രാക്ടർ ട്രാക്ടർ വന്നു പിന്നെ അങ്ങനെ എല്ലാം ആയി ഇപ്പോൾ പണ്ട് നമ്മൾ ഈ നെല്ലിലേക്ക് വെള്ളത്തിനു തേവുകോട്ട വഴി ചവിട്ടി ഒരാൾ ചവിട്ടി മറ്റൊരാൾ വെള്ളമെടുത്തു അങ്ങനെ എല്ലാം ആണ് നമ്മൾ വയലിൽ വെള്ളമൊക്കെ ശേഖരിക്കൽ ഇപ്പോൾ എല്ലാം മോട്ടറു എല്ലാം ആയി അപ്പോൾ പണ്ടുകാലങ്ങൾ ഉപകരണങ്ങളൊന്നും ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല അരിവാൾ കൊണ്ട് പറയാച്ചാ അത് ഇപ്പോൾ ഒരു മാറ്റോം വന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നണു അതെന്നു വെച്ചാൽ അതിൻ്റെ നെല്ല് കൊയ്യുന്നതിനോ ഇപ്പോൾ യന്ത്രങ്ങൾ വന്നു അതിൻ്റെ അരി എടുക്കാനായികൊട്ടെ പാ അതിൻ്റെ തൊലി പാറ്റാൻ ആയിക്കോട്ടെ അതിപ്പോൾ എല്ലാം യന്ത്രങ്ങളായി പണ്ടെല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെല്ലാം കാണുന്നകാലത്തേ ഉഴുത് വന്നു കഴിഞ്ഞാൽ കറ്റയെല്ലാം കെട്ടി അടിച്ചു കഴിഞ്ഞു മുറത്തിലെല്ലാം ഇട്ട് പാറ്റി അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴെന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും യന്ത്രങ്ങളായി യന്ത്രം കൊണ്ടുള്ള പരിപാടി ആയി അങ്ങനെ എല്ലാമാണ് മണ്ണ് ട്രാക്ടറിൽ കൊണ്ട് ട്രാക്ടറിൽ കൊണ്ടോകാൻ ചെയ്യുന്നത് ഇപ്പോൾ തൂമ്പയെൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ടായി അങ്ങനെ ഉള്ള ഇതാണ് നമ്മളിപ്പോൾ കണ്ടു വരുന്നത്